ജീവിത പങ്കാളിയെ കിട്ടാൻ പാടുണ്ടോ എന്നു ചോദിച്ചാൽ പാട് ഉണ്ട് എന്നാ എന്നു പറഞ്ഞാൽ ഈ നമ്മുടെ ഓരോ സാഹചര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പട്ടണങ്ങളിലും കാര്യങ്ങളിലൊക്കെ പോകുന്നതാണ് അവിടെ ആകുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത് പിന്നെ അനിയോജ്യമായ ആളുകളെ കിട്ടുന്നത് തന്നെയാണ് പഠിപ്പും വിവരവും നമുക്ക് പഠിക്കുന്നതിനും എല്ലാം പട്ടണങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് അതിന് സാധിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾക്ക് പട്ടണ പ്രദേശത്തേക്ക് പോകാൻ സാധിക്കുന്നത് പിന്നെ എന്നാ എന്നു പറഞ്ഞാൽ ഈ ട്യൂഷനും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതും എല്ലാം പട്ടണപ്രദേശത്താണ് പിന്നെ അവർക്ക് അവരുടേതായ നല്ല ഒരു ഇത് കിട്ടും അതുകൊണ്ട് പട്ടണത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെയൊക്കെ ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന കൊണ്ട് നമ്മൾക്ക് ശരിക്കിനും ഇവിടെയൊക്കെ ജീവിക്കാൻ ഇവിടെ പെട്ടു പോയില്ലേ അതുകൊണ്ട് ജീവിത പങ്കാളിയെ കിട്ടാനെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പാടൊന്നും എൻ്റെ ഏട്ടായി എന്നെ ഇവിടെ നിന്ന് കണ്ടു എനിക്ക് പട്ടണത്തിലേക്ക് പോകുന്ന ഇഷ്ട്ടം ഇല്ല എനിക്ക് ഇവിടെയൊക്കെ ജീവിക്കാനാണ് ഇഷ്ടം എന്നെ സംബന്ധിച്ചു ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ ഈ ഇടുക്കിയോട് യോജിച്ചു പോകുന്ന ഒരാളാണ് എനിക്ക് ഇടുക്കിയെ ഇഷ്ട്ടമാണ് പിന്നെ ആനയും അങ്ങനെ അതൊക്കെ വരുന്നു നമ്മുടെ പ്രദേശത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ പട്ടണത്തിൽ ഇഷ്ടപ്പെടാത്തത് പട്ടണത്തെ എനിക്ക് വെറും അങ്ങനെ വലിയത് എനിക്ക് ഇഷ്ടം ഇല്ല പക്ഷേ മറ്റുള്ളവർക്ക് എൻ്റെ ഒരു പെൺകൊച്ച് ഉണ്ട് അവർക്ക് പുറത്തേക്ക് പോകുന്നവർ അങ്ങനെ പട്ടണങ്ങളിലേക്ക് പോകുന്നതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടായിരിക്കും പട്ടണങ്ങളിലുള്ള ആളുകളെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നു അങ്ങനെ യുവതലമുറ അവളെ പോലെ അവരെപ്പോലെ ഉള്ളവർക്ക് അതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ സ്നേഹവും എല്ലാം ഉണ്ടാവുന്നത് ശരിക്കും നമ്മൾക്ക് ഈ നമ്മുടെ ഇടുക്കിയിൽ പ്രദേശത്ത് ജീവിക്കുന്നവർക്കാണ് പട്ടണങ്ങളിൽ ഉള്ളവർക്ക് അങ്ങനെ ഒരു സ്നേഹമോ അങ്ങനെ ഒന്നുമല്ല ഒരു മനസ്സാക്ഷി ഇല്ലാത്തവരാണെന്ന് ഞാൻ പറയും പക്ഷേ ജീവിത പങ്കാളിയെ നമുക്ക് ഇവിടെയുള്ളവർക്ക് ഇടുക്കിലുള്ളവർക്ക് ഇടുക്കിയെ കിട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത് വേറെ എനിക്ക് ഇടുക്കിയെ പറ്റി അതിൽ പുറത്ത് പോകുന്നവർക്കും അങ്ങനെ കുഴപ്പമില്ല അനിയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ കാട് കൂടതലിലും പിള്ളാർ അങ്ങനെ പോകുന്നതു കൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾക്ക് പിള്ളേർക്ക് കിട്ടാത്ത പക്ഷേ ഇവിടെയുള്ളവർക്കും കല്യാണം നടക്കുന്നുണ്ടല്ലോ ഇവിടെ ഉള്ളവരും ജീവിച്ചു പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല പിന്നെ കറക്റ്റ് സമയത്ത് കല്യാണവും നടന്നു നല്ല പഠിപ്പും കാര്യങ്ങളും ജോലിയും ഉണ്ടെങ്കിൽ എവിടെയും ജീവിച്ചു പോകാം ഇവിടെ ഉള്ളവർക്കും കല്യാണമൊക്കെ നടക്കുന്നുണ്ട് പട്ടണത്തിലുള്ളവർ ഒത്തിരി പേര് കല്യാണം കഴിക്കാത്തവരൊക്കെ ഇല്ലേ ഡൈവേഴ്സൊക്കെ ഒത്തിരി ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം നമ്മടെ ഹൈറേഞ്ച് തന്നെയാണ് നല്ലത് പിന്നെ ഒത്തിരി ജീവിത മാർഗ്ഗത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ശുദ്ധവായു ശ്വസിക്കാലോ ഹൈറേയ്ഞ്ചിൽ അതുകൊണ്ട് ഹൈറേയ്ഞ്ചിനെ കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല യുവതലമുറ നല്ലോണം പഠിച്ചു നല്ല സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുന്നതിന് എന്നാ കുഴപ്പം അവർക്ക് ജീവിക്കാലോ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും എല്ലാം കൂടി വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഹൈറേയ്ഞ്ചിനെ അത്രയും അങ്ങ് അവഗണിക്കാൻ സാധിക്കുന്നില്ല ജീവിത പങ്കാളിയെ കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ട് അധികൊന്നുമില്ല അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ കിട്ടുകയില്ല അല്ലാതെയൊക്കെ എനിക്ക് വേറെ ഒന്നും ഇതിനോട് പറയാനില്ലെന്നാണ് തോന്നുന്നത്